എന്റെ കാരണവരെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹവൊരു ചരിത്രകാരനായ വിദ്യര്ത്ഥിയാണ് അപ്പോൾ അദ്ദേഹത്തില് നിന്ന് ഒത്തിരി അനുഭവങ്ങള് ഉള്ക്കൊണ്ട് കൊണ്ടുതന്നെയാണ് ഞാന് ചരിത്രമെന്ന് പറയുന്ന വിഷയത്തെ എടുക്കാനും അതിലുള്ള കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനും ശ്രമിച്ചത് അപ്പോൾ ഒത്തിരി മഹാന്മാരെക്കുറിച്ചും നേതാക്കന്മാരെക്കുറിച്ചൊന്നും എനിക്കറിയില്ലെങ്കിലും കുറച്ചൊക്കെ നേതാക്കന്മാരെക്കുറിച്ചും കുറച്ചൊക്കെ മഹാന്മാരെക്കുറിച്ചും കാര്യങ്ങൾ പുള്ളിക്കാരനിൽ നിന്ന് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് നമ്മുടെ പ്രദേശങ്ങള്ക്കായടുത്ത് ഒരു നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വാരിയംകുന്നത്ത് കുഞ്ഞമൊ കുഞ്ഞഹമ്മദ് ഹാജിയെന്ന് പറയുന്നൊരു നേതാവുണ്ട് അദ്ദേഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ചേട്ടൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം മലബാര് കലാപ കാലഘട്ടങ്ങളിൽ മലബാര് കലാപം എന്ന് പറയുന്നത് ഇവിടെ ഒരു വര്ഗീയ കലാപമായിട്ട് ബ്രിട്ടീഷുകാര്ക്കെതിരെ ഇവിടെയുള്ള മലബാറിലെ ജനങ്ങൾ നയിച്ചൊരു കലാപമാണ് മലബാര് കലാപം എന്ന് പറയുന്നത് ഈ കലാപത്തിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഈ ഇദ്ദേഹം ഈ കലാപ കാലഘട്ടങ്ങളിൽ അവിടെയുള്ള ജനങ്ങള്ക്ക് വേണ്ടി പോരാടി ജനങ്ങള്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാരോട് ശബ്ദം ഉയര്ത്തി അപ്പം ഇത്തരത്തിൽ അപ്പം ഇദ്ദേഹമൊരു നല്ലൊരു നേതാവായിരുന്നു ഇദ്ദേഹം നമ്മുടെ പ്രദേശങ്ങള്ക്ക് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ചേട്ടനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും പറ്റി അപ്പം ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഈയൊരു നേതാവിനെ കുറിച്ചറിയാനും എന്നിട്ട് ഞാനീ നേതാവിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അടുത്തറിഞ്ഞപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വസ്തുത വസ്തുതയ്ക്ക് യോജിച്ചതാണെന്ന് മനസ്സിലാക്കുവാനും ഇങ്ങനെ ഒരു ഞാൻ നാ പ്രവര്ത്തനം കാ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കി പ്രവത്തന ക്ഷമതയെക്കുറിച്ച് കൂടുതലായിട്ടും മനസ്സിലാക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കുവാനുമായിട്ട് കഴിഞ്ഞു പിന്നെ അടുത്തൊരു ഒരു നാടുവാഴി നമ്മൾ പൊതുവായിട്ട് അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരെ ഒക്കെ വിളിച്ച് ന ഞങ്ങളുടെ അടുത്തുള്ളൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നിലമ്പൂര് കോവിലകമെന്ന് പറയുന്നത് നിലമ്പൂര് കോവിലകത്തിന്റെ വകയായിരുന്നു ഈ അമരമ്പലം പഞ്ചായത്തിലുള്ള ഭൂരിഭാഗ പ്രദേശങ്ങളും കേന്ദ്രങ്ങളുമൊക്കെ എന്ന് പറയുന്നത് ഈ നിലമ്പൂരിന്റെ ഒരു ചരിത്രം തന്നെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മലബാറിന്റെ ചരിത്രത്തിലേക്ക് നിര്ണ്ണായകമായിട്ടുള്ള പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് മാനവേദൻ രാജ ബ്രിട്ടീഷുകാരാണ് അദ്ദേഹത്തെ മാനവേദൻ രാജ എന്ന് വിളിച്ചത് ചേട്ടനിങ്ങനെ പറയാറുണ്ട് എപ്പോഴും ഇദ്ദേഹത്തെക്കുറിച്ച് അപ്പോൾ ഈ മാനവേദൻ രാജ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും പങ്ക് വഹിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മാനവേദൻ രാജയുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അതോടൊപ്പം തന്നെ അദ്ദേഹമൊരു നാടുവാഴിയായിരുന്നു നാടുവാഴി ഭരണ സമ്പ്രദാ സംബ്ര് സംവിധാനമാണ് ഇവിടെ നില നിന്നിരുന്നത് അങ്ങനെ പറയുകയാണെങ്കില് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ഒരു മഹാരഥനായിരുന്നു മനസ്സിലാക്കാനായിട്ട് കഴിയും പിന്നെ അത് മാത്രമല്ല ഇദ്ദേഹത്തിന് ഒട്ടനവധി കാര്യങ്ങൾ ഗ്രഹിക്കാനും ഈ കാര്യങ്ങളോടെ തന്നെ അനവധി ആശയങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നു കഴിയുന്നൊരു വ്യക്തിയായിരുന്നു ജനങ്ങളുടെ പ്രജകളുടെ താല്പര്യങ്ങള്ക്കും പ്രജകളുടെ ക്ഷേമത്തിനൊക്കെ വേണ്ടിയായിരുന്നു അവർ ചെയ്തത് പിന്നെ മാനവേദൻ രാജ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്ന അദ്ദേഹം ഈ നമ്മുടെ നിലമ്പൂരിലുള്ള റെയില് പാതകൾ ഈ റെയില്വേക്ക് ഒരു രു ഒരു രൂപയ്ക്കാണ് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഭൂമി നല്കിയത് പിന്നെ ഒരു രൂപയ്ക്കാണ് ഈ മാനവേദൻ സ്കൂൾ ഒക്കെ പണിത് കൊടുത്തത് ഇന്നിപ്പോൾ ഒരു ഹയർ സെക്കന്ഡറി വിദ്യാലയം അവിടെ നിലനില്ക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഈ നമ്മുടെ നിലമ്പൂരിന്റെ നിലമ്പൂര് കോവിലകത്തിന്റെ പരിധിക്ക് പരിധിക്കുള്ളിലുള്ള എല്ലാ ഭൂപ്രദേശങ്ങളുടെയുള്ള പട്ടയങ്ങളും ആധാരങ്ങളും എല്ലാം തന്നെ മാനവേദൻ രാജ നല്കിയത് അല്ലെങ്കില് കോവിലകത്തിന്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഏതൊരു പട്ടയം പരിശോധിച്ച് നോക്കിയാലും അതിന്റെ ആദ്യ പട്ടയം സ്ഥിതി ചെയ്യുന്നത് മ നിലമ്പൂര് കോവിലകത്തിന്റെ ഇതിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളക്കെ ഭരണ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കുന്നെന്ന് മാനവേദൻ രാജ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചു അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രവര്ത്തനം വളരെ ശ്രദ്ധാര്ഹമാണ് പിന്നെ അത് മാത്രമല്ല ഈ നിലമ്പൂരിൽ നിലമ്പൂർ ഏറ്റോം കൂടുതൽ പ്രസിദ്ധമായിരിക്കുന്നത് തേക്കിന്റെ നാടെന്നുള്ള രീതിയിലാണ് അപ്പം ഈ തേക്കിന്റെ നാടെന്ന രീതിയിൽ പ്രസിദ്ധമായിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ ഇവിടെ തേക്ക് പ്ലാൻറ്റേഷനുമായിട്ട് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അതിനുള്ള സഹായ സഹകരണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതിലും ഈ മാനവേദൻ രാജയ്ക്ക് നിര്ണ്ണായകമായിട്ടുള്ള പങ്കും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും കഴിയും പിന്നെ നേരത്തെ പറഞ്ഞത് പോലെതന്നെ ഇന്ത്യന് റെയില്വേ ഇന്ത്യന് റെയില്വേയുടെ റെയില് പാതകൾ ആദ്യ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് റെയില്വേ ആയിരുന്നു അത് അതിനുള്ള ചരക്കുകളും മറ്റ് കാര്യങ്ങളും കൊണ്ട് വരുന്ന സൗകര്യം ഒരുക്കിയത് റെയില് പാതകളൊക്കെ റെയില് പാതകള്ക്കുള്ള സ്ഥലങ്ങളൊക്കെ നല്കിയതും മാനവേദൻ രാജയാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും പിന്നീട് അടുത്തൊരു നേതാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മലപ്പുറത്ത് മുസ്ലിം കുടിയേറ്റങ്ങളെ പ്രോത്സാഹനം ചെയ്തൊരു വ്യക്തിയാണ് ചരിത്രത്തിലൊക്കെ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നൊരു വ്യക്തിയാണ് മാലിക് തിനാര് എന്ന് പറയുന്ന വ്യക്തി ഈ മാലിക് തിനാറിന്റെ സംഘമാണ് മെയിൻ ആയിട്ട് മലബാറിലേക്ക് മുസ്ലിം പരിവര്ത്തനത്തിന്റെ മുസ്ലിങ്ങളുടെ ഒക്കെ ഒരു വ്യാപനത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഈ മാലിക് തിനാറിന് ശിഷ്യന്മാരും അദ്ദേഹവും കൂടിയാണ് ഇവിടെ വന്നത് അതിനേറ്റവും വലിയ ഉദാഹരണമായിട്ട് നിലനില്ക്കുന്നത് ഈ നമ്മടെ ഈ നിലമ്പൂര് ഭാഗത്തുതന്നെ പ്രദേശത്തുതന്നെ ഈ മലപ്പുറം ജില്ലയില് തന്നെ പറയുകയാണെങ്കിൽ നിലമ്പൂര് പ്രദേശത്തുതന്നെ ഏറ്റവും പഴക്കമുള്ള പള്ളിയാണ് മയിലാടി പള്ളി ഈ പള്ളിയുടെ സ്ഥാപനമായിട്ട് മാലിക് തിനാറിന് പ്രധാനപ്പെട്ട പങ്കുണ്ട് അപ്പോൾ ഇദ്ദേഹം ഒരു മതപണ്ഡിതനെന്നതിൽ ഉപരി ഒരു സമൂഹത്തിനെ ഉന്നമനത്തിലേക്ക് നയിച്ചൊരു നേതാവും കൂടിയായിരുന്നു കാരണം അക്കാലഘട്ടങ്ങളിൽ മേല് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം താഴ്ന്ന ആള്ക്കാര്ക്ക് പൊതുവേ ഇല്ലായിരുന്നൊരു കാലഘട്ടമായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ഇസ്ലാം മതം പ്രോത്സാഹിപ്പിക്കുകയും ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്തൊരു വ്യക്തിയാരുന്നു മാലിക് തിനാർ അപ്പോൾ ഇദ്ദേഹമൊരു പ്രമുഖനായ വ്യക്തിയാണ് അദ്ദേഹം ഇത് അതോടൊപ്പം തന്നെ ആ ജനത്തെ സ്ഥലത്തെ ജനങ്ങളുടെ പരിഷ്കരണത്തിന് അവരെ ആത്മീയമായിട്ട് വളര്ത്തുന്നതിനും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കെയാണ് പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കളെക്കെയാണ് പൊതുവായിട്ട് കാരണവരില് നിന്ന് കൂടുതൽ മനസ്സിലാക്കുവാനും നേതാക്കന്മാരുടെ പ്രവര്ത്തനങ്ങൾ എന്തൊക്കെയാണ് ഈ നേതാക്കന്മാർ എന്തൊക്കെ ചെയ്തു കൂടുതലായിട്ട് പിന്നെ ഇവിടെ അനവധി സാധാരണ നേതാക്കന്മാർ നിലകൊണ്ടിട്ടുണ്ട് ഈ നേതാക്കന്മാരൊക്കെ നിലകൊള്ളുന്നതിന് കാരണം പ്രധാനപ്പെട്ടൊരു വസ്തുത എന്ന് പറയുന്നത് സത്യം ധര്മമെന്ന് പറയുന്ന മൂല്യങ്ങള്ക്കും അവരുടെ അവകാശങ്ങള്ക്കും അസമത്വത്തിനെതിരും എതിരായിട്ട് പ്രവര്ത്തിച്ച് പ്രവര്ത്തിക്കണം സമത്വം കൊണ്ട് വരണം സമൂഹത്തില് ഇതൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പ്രവര്ത്തിച്ചെന്ന് പറയുന്ന ആശയവും മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പിന്നീട് ഇവിടെ ഈ മലബാറിലേക്ക് എടുത്ത് നോക്കിയാണെങ്കിൽ പൊതുവായിട്ട് ആര്ക്കും ക്രിസ്ത്യന് അധിനിവേശം ഒക്കെ ക്രിസ്ത്യന് മിഷണറിമാരുടെ വരവോട് കൂടിയിട്ടാണ് ഈ സമൂഹത്തിൽ നിലനിന്നത് അപ്പോൾ അതിന് പ്രധാനമായിട്ടും ഈ മലബാര് മലപ്പുറം നിലമ്പൂർ ഭാഗത്ത് നിലമ്പൂരിന്റെ ഒരു പറയുകയാണെങ്കില് നിലമ്പൂരിന്റെ അണ്ടറിലേക്ക് ഇപ്പോൾ ഈ ഒരു ഇത്ര പള്ളികൾ ഇത്ര ഫൊറോന പള്ളിക്കില്ല അപ്പം ഇത് കൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആദ്യമായിട്ട് വന്നൊരു വൈദികനെന്ന് പറയുന്നത് ഫാദര് സക്കറിയാസ് മണ്ണക്കുശുമ്പിൽ എന്ന് പറയുന്നൊരു അച്ചനാണ് അപ്പോൾ ഈ വൈദികൻ അവിടെ ആദ്യമായിട്ട് മത വിദ്യാലയങ്ങൾ തൊടങ്ങിയാണ് അപ്പം വിദ്യാലയങ്ങൾ വിദ്യാര്ത്ഥികള്ക്ക് പള്ളിയോടൊപ്പം പള്ളിക്കൂടമെന്ന് പറയുന്നൊരു ആശയത്തിനും പ്രധാനമായിട്ട് പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് ഫാദര് സക്കറിയാസ് മണ്ണിക്കുശുമ്പിൽ ഇദ്ദേഹമായിരുന്നു ഈ നിലമ്പൂര് പ്രദേശത്തുള്ള പള്ളികളുടെ ഒക്കെ ഒരു നിയന്ത്രണവും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അത് മാത്രമല്ല അവിടെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റ് കാര്യങ്ങള്ക്കൊക്കെ വേണ്ടി നിര്ണ്ണായകമായിട്ടുള്ള പങ്ക് വഹിക്കുകയും നല്ല രീതിയിൽ പ്രവര്ത്തന ആരംഭം അല്ലെങ്കില് പ്രവര്ത്തന ആവേശം കുറിക്കുകയും ചെയ്തൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും അപ്പം ഇത്തരത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള പരിഷ്കരണത്തിനും സാമ്പത്തികമായ പരിഷ്കരണത്തിനും രാഷ്ട്രീയമായ പരിഷ്കരണത്തിനും അതോടൊപ്പം തന്നെ മൂല്യവത്തായ പരിഷ്കരണത്തിനൊക്കെ പ്രമുഖമായുള്ള സ്ഥാനം വഹിച്ച വ്യക്തിയാ വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പം പറഞ്ഞത് ഇതൊക്കെ ഈ കാർണവരില് നിന്ന് മനസ്സിലാക്കിയ അല്ലെങ്കില് മുതിര്ന്നവർ വ്യക്തിത്വങ്ങളില് നിന്ന് മനസ്സിലാക്കിയതാണ് ഈ നേതാക്കന്മാരായി കഴിഞ്ഞാലും രാജാക്കന്മാരായി കഴിഞ്ഞാലും നാടുവാഴികളായി കഴിഞ്ഞാലും ഇവരൊക്കെ എന്താണ് സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി അല്ലെങ്കില് ന് പ്രദേശത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് പ്രവര്ത്തിച്ചതെന്ന് പറയുന്ന ആശയവും മനസ്സിലാക്കാം